അനാഥാലയങ്ങളിൽ ഇടക്ക് ഇടക്ക് പല തരത്തിലുള്ള ആഘോഷങ്ങളും നടക്കാറുണ്ട് പൂജയും മറ്റു ഉത്സവവും പരിപാടികളും മറ്റുമായിട്ട് ഒരുപാട് ആഘോഷങ്ങൾ നടക്കാറുണ്ട് അമ്പലങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കൂത്തമ്പലങ്ങളിൽ കൂത്ത് തോല്പാവക്കൂത് നടക്കാറുണ്ട് കഥകളി ചാക്ക്യാർ കൂത്ത് അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ അമ്പലങ്ങളിൽ നടക്കാറുണ്ട് അതെല്ലാം ആസ്വദിക്കാൻ ഒരുപാട് പേര് എത്തുകയും വളരെ ആസ്വാദകരമായ ഉത്സവങ്ങളും ആണ് പിന്നെ ചെണ്ടമേളം അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ അമ്പലങ്ങളിൽ നടക്കാറുണ്ട് അതിൽ ആൾക്കാരുടെ സജീവ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആൾക്കാർ വളരെ അധികം ആസ്വദിക്കുകയും അതിനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണാൻ ഒരുപാട് രസമാണ് ഇതിലൂടെ ആൾക്കാരുടെ ഒത്തൊരുമയും കൂട്ടായ്മ അങ്ങനെ ഒപ്പവും വർദ്ധിപ്പിക്കുന്നു